ആയോധനകല ഈ കാലഘട്ടത്തേക്കാളും പഴയ കാലഘട്ടങ്ങളിലാണ് നിർബന്ധിതമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ഒരു ഇതാണ് ആയോധനകല എന്നു പറയുന്നത് ഇതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ വലിയ തറവാട് അങ്ങനത്തെ ആ സ്ഥലങ്ങളിലുള്ളവരൊക്കെ കൂടുതലായിട്ടും ഈ ആയോധനകല പരീക്ഷിച്ചിട്ടുണ്ടാകണം ഈ ഉണ്ണിയാർച്ചയെ പോലെയും മുഹമ്മദ് അങ്ങനെയുള്ള ആളുകര ആളുകളെ പോലെ ഈ ആയോധനകല എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് അത് തന്നെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും അങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട് പാ പഠിച്ചു കിട്ടിയാൽ നല്ലതു തന്നെയാണ് പുറത്തിറങ്ങുമ്പോഴും എന്തൊരു ആവശ്യത്തിനും ആയോധനകല അറിയാമെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് നേരെ സ്ത്രീകൾക്കൊക്കെ അത് പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ല കാര്യം തന്നെയാണ് എവിടെയെങ്കിലും പോകുമ്പോഴോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും വർത്താനം പെരുമാറ്റമോ കേട്ട് കേൾക്കേണ്ടി വന്നാൽ നമുക്ക് ആ ആയോധനകല നമുക്ക് അവരുടെ നേരെ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ടു തന്നെ ആയോധനകല പഠിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്